ഹലോ ആ ക്യാബ് ഏജൻസിയല്ലേ എൻ്റെ പേര് നിവ്യാന്നാണേ ഞാൻ കിടങ്ങറായിന്നാണ് വിളിക്കുന്നത് ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വരുന്ന പതിനേഴാം തീയതി തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് എറണാകുളം ട്രാവലിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് രാവിലെ ആറു മണിക്കായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിരുന്നതെ ആ അതേയതെ അപ്പോള് അത് നമുക്ക് വേറെ കുറച്ച് അസൗകര്യം വന്നതുകൊണ്ട് നമ്മളാ യാത്ര ക്യാൻസല് ചെയ്തു അപ്പം ഞാൻ നിങ്ങൾക്ക് ഏജൻസിയില് ഡയറക്റ്റ് വന്ന് കുറച്ച് ഫണ്ട് അഡ്വാൻസ് തന്നായിരുന്നല്ലോ ഫൈവ് ഹൻഡ്രഡ് റുപ്പീസ് ഞാൻ അഡ്വാൻസ് തന്നാരുന്നു ആ അപ്പം ഞാനിതിപ്പോള് ക്യാൻസല് ചെയ്യുകയാണ് അപ്പോള് എനിക്ക് റീഫണ്ട് ചെയ്യണമായിരുന്നു അതിൻ്റെ പ്രൊസീജിയേഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ആ അപ്പോള് ഞാനങ്ങോട്ട് ഡയറക്റ്റ് വരണോ അതോ ഞാനെൻ്റെ ഗൂഗിൾ പേ നമ്പര് തന്നാല് നിങ്ങള് എനിക്കത് ക്രെഡിറ്റ് ചെയ്ത് തരുമോ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സൊന്ന് പറയാമോ ഓ നമ്പര് തന്നാലും മതിയല്ലേ അപ്പോള് ഇന്ന് തന്നെ പേയ്മെൻ്റ് തിരിച്ച് തരുമോ ആ ശരി അപ്പോള് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏജൻസിയുടെ വാട്സപ് നമ്പറിലേക്ക് ഞാനെൻ്റെ ഞാനെൻ്റെ മെസേജ് അയക്കാം അപ്പോള് നിങ്ങളെനിക്കൊരു ഗൂഗിൾ പേയില് ഞാൻ റിക്കൊസ്റ്റ് വിട്ടാലും മതിയോ ഗൂഗിൾ പേയില് അതായിരിക്കും നല്ലതല്ലേ ഓക്കെ എന്നാല് അങ്ങനെ ചെയ്യാം ഓക്കെ ശരി എന്നാല് താങ്ക് യു കെട്ടോ